തീർച്ചയായിട്ടും വൻകിട കാർഷിക സംരംഭങ്ങളിൽ നിന്നുള്ള മത്സരങ്ങൾ എന്താണ് ഗ്രാമീണ മേഖലയിലെ ചെറുകിട കർഷകരെ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട് കാരണം ഈ വൻകിട ചെറുകിട എന്നു പറഞ്ഞപ്പോൾ തന്നെ അവിടെ വിവേചനമാണ് കാണിച്ചിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മത്സരങ്ങളിൽ വിവേചനം വന്നേക്കാം ഈ വിവേചനങ്ങൾ തീർച്ചയായിട്ടും ചെറുകിട കർഷകരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ധാരാളം ബുദ്ധിമുട്ടുകൾ അവർക്കെന്താവും പ്രധാനം ചെയ്യുന്നുണ്ട് ഒരു സാധനത്തിനെ രണ്ടായി വിഭജിക്കുന്നിടത്ത് അതിൽ അസമത്വവും വേറെ അനീതിയും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ആർക്കാണോ ഈ സാധനങ്ങളൊക്കെ കൊള്ളുന്നത് അവരുടെ മനസ്സിന് എന്തായിട്ടും സ്വാഭാവികമായിട്ടും കാര്യങ്ങളുണ്ടാവും അപ്പോൾ ഈ മത്സരത്തിലെന്താവും ഇതൊക്കെ ഉണ്ടായത് കാരണത്താലെന്നെ ശക്തമായിട്ടുതന്നെ ഇതവരുടെ മനസ്സിനേയും അതുപോലെത്തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബാധിച്ചിട്ടുണ്ടാവും അതിന് യാതൊരു സംശയവും നമുക്കില്ല എന്നാൽ ഈ ഇത്തരത്തിലുള്ള വിവേചനവും അസമത്വമായി ഒക്കെ കർഷകർക്കിടയിൽ നിന്ന് ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു കർഷക കമ്മ്യൂണിറ്റി തന്നെ നമ്മൾക്കെന്താകും ഇവിടെ നമുക്ക് സ്ഥാപിക്കാൻ കഴിയും മത്സരം എന്നു പറയുമ്പോൾ അതിൽ നിന്ന് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് ചെറുകിട കാർഷിക കർഷകർക്കെന്താണ് അത് വളരെയധികം ഉപകാരമാണ് ചെയ്യുന്നത് കാരണം അവർക്ക് കുറഞ്ഞ ചിലവിൽ അല്ലെങ്കിൽ അവർക്കെന്താണ് തൻ്റെ കുടുംബത്തെ നോക്കുന്ന ഒരു പങ്കിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെക്കേണ്ട ആവശ്യമില്ല അവർക്കെന്താണ് അവരുടെ ഉപകരണങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ എന്തിയെ വാങ്ങാനും തൻ്റെ കുടുംബത്തെ നോക്കുന്ന ഒരു വിധത്തിൽ നിന്നും മാറ്റിവെക്കേണ്ട ആവിശ്യമില്ല നേരെമറിച്ച് ഇത്തരത്തിലുള്ള അസമത്വവും അനീതിയും ഉണ്ടായിരിക്കേ മത്സരങ്ങൾ ഉണ്ടായിരിക്കേ യാതൊരു കാരണവശാലം അവർക്ക് യാതൊരു പ്രൈസോ അല്ലെങ്കിൽ ഒരു സമ്മാനം എന്താണ് കിട്ടില്ല കിട്ടില്ല അപ്പോൾ ഈ ഒരു സംഭവം എന്നുള്ളത് തീർച്ചയായിട്ടും എന്താണ് അവരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്താണ് തളർത്തുന്നത് ഒരു കാര്യം തന്നെയാണ് പിന്നെ വേറൊരു വശത്തോടുകൂടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മത്സരം മത്സരത്തിൻ്റെ രീതിയിൽ കാണുന്നില്ല എന്നതാണ് ഈ വൻകിട കാർഷിക സംരംഭങ്ങളിൽ നിന്നുള്ള മത്സരങ്ങളുടെ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അവർ അവരുടെ ഭാഗക്കാരെ വൻകിട കർഷകരെ മാത്രം പരിഗണിക്കുകയും ചെറുകിട കർഷകരെ ആ സമയത്ത് താഴ്ത്തുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും പരിഹാരങ്ങൾ ഉണ്ടായിട്ടും അത് ചെയ്യാതെ ഇരിക്കുന്ന ഈ അവസ്ഥയിലൂടെയാണ് ചെറുകിട കർഷകർ കർഷകർ കടന്നുപോകുന്നത് ഇതിനെതിരെ തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കുക തന്നെ ചെയ്യണം